ഗ്രാമപ്രദേശങ്ങളില് തന്നെ പഴശ്ശി കുടീരം പഴശ്ശി കുടീരം എന്ന് പറഞ്ഞാൽ പഴശ്ശിരാജ കേരളവര്മ്മ പഴശ്ശി രാജാവിനെ അടക്കം ചെയ്തു എന്നുള്ളതു തന്നെ അറിയപ്പെടുന്ന സ്ഥലത്തിന്റെ പേരാണ് പഴശ്ശി കുടീരം എന്ന് പറയുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പഴശ്ശി രാജാവ് മരണപ്പെട്ടപ്പോൾ അദ്ദേഹത്തെ കൊന്നതിനു ശേഷം അവർ തന്നെ ബ്രിട്ടീഷുകാർ തന്നെ കൊണ്ട് പോയിട്ട് അടക്കം ചെയ്തു എന്ന് പറയുന്ന സ്ഥലത്തിനെ ആണ് പഴശ്ശി കുടീരം എന്ന പേരിൽ അറിയപ്പെടുന്നത് അത് വയനാട്ടിൽ തന്നെയാണ് ഉള്ളത് മാനന്തവാടി എന്ന പ്രദേശത്താണ് അതുള്ളത് പഴശ്ശി കുടീരം എന്ന് പറഞ്ഞ പേരിലാണ് അതിനെ അറിയപ്പെടുന്നത് പിന്നെ ഉള്ളത് കോട്ട വെച്ചിട്ട് ഇത് എടക്കല് ഗുഹ എടക്കല് ഗുഹ എന്ന് പറഞ്ഞാൽ ഒരു കോട്ടയാണത് പഴശ്ശിരാജ യുദ്ധത്തിനു വന്നപ്പോൾ കാട്ടില് ഒളിച്ചിരുന്നു എന്ന് പറയുന്നത് ഇതൊക്കെ ഇപ്പോൾ ടൂറിസ്റ്റ് മേഖലയായിട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ കൂടുതലായിട്ട് ഇത് രണ്ടും ടൂറിസ്റ്റ് മേഖലയിലൊക്കെ ആയിട്ടാണുള്ളത് ടൂറിസ്റ്റ് ആയിട്ടാണ് ഉള്ളത് പഴശ്ശി കുടീരവും അങ്ങനെ തന്നെ ടൂറിസ്റ്റുകാർ വന്നു വിസിറ്റ് ചെയ്യുന്നത് അതിലുള്ള കുറച്ചു മ്യൂസിയം മ്യൂസിയം അല്ല കുറച്ച് എന്താ പറയുക വാളിന്റെ ഫോട്ടോസ് ഫോട്ടോസിന്റെ കളക്ഷന് അങ്ങനത്തെയൊക്കെയാണ് ഈ പഴശ്ശി കുടീരത്തിന്റെ കുറേ ഉണ്ട് നമ്മൾ വിസിറ്റ് ചെയ്യാന് വരുമ്പോൾ കാണാം അത് കുടീരം പോലെയായിട്ട് തന്നെ ഉണ്ട് പ്രദേശത്ത് തന്നെ ആയിട്ടുള്ളത് കാണാം പഴശ്ശി കുടീരം എന്ന് പറഞ്ഞാൽ പേരിലാണ് അത് അറിയപ്പെടുന്നത് അതൊക്കെ നിരവധി ആളുകൾ വിസിറ്റ് ചെയ്യാനും വരുന്നുണ്ട് ചരിത്രപരമായത് കൊണ്ട്